അപ്പോൾ നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസമേഖലയിൽ പ്രവർത്തിക്കുന്നതിലുള്ള പ്രധാന അവസരങ്ങൾ വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നാം ക്ലാസ് തൊട്ട് നമുക്ക് പ്ലസ് ടു വരെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ലാണ്ട് നമുക്ക് അതായത് മുന്നോട്ട് പോവാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ പ്ലസ് ടു കഴിയുമ്പോഴാണ് നമ്മളേതാ കോഴ്സ് ഏതാ കോഴ്സ് എടുക്കുക നോക്കാത നോക്കാൻ പറ്റുമോ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പ്ലസ് ടു കഴിയുമ്പോൾ നമുക്ക് നമ്മള് അതായത് നമ്മള് ജോലീന്റെ കാര്യത്തിലും ഒക്കെ പോവും പിന്നെയെന്ന് വച്ചിട്ട് നമുക്ക് ചിലവരൊക്കെ അക്കൗണ്ടിംഗ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്ലയിസ്മെന്റ് കിട്ടിയെന്ന് വരില്ല അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലയിസ്മെന്റ് അതായത് പ്ലയിസ്മെന്റ് അസിസ്റ്റൻസുള്ള കോഴ്സുകള് എന്ന് വച്ചാൽ വളരെ കുറവാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിങ് കാര്യങ്ങളിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പിന്നെ നഴ്സിങ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്കെന്തായാലും ജോലി ഉറപ്പാണ് കാരണം ഹോസ്പിറ്റലില് അല്ലെങ്കില് മേഖലകളില് ഒരുപാട് നഴ്സിനെ ആവശ്യ ആവശ്യമുള്ളതുകൊണ്ട് നമുക്കെന്തായാലും ജോലി ഉറപ്പാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാങ്കേതിക പ്രശ്നങ്ങള് കാര്യങ്ങള് തടസ്സങ്ങള് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പിന്നെ അക്കാദമിക് അവസാരങ്ങളില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയില് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചിലർക്കൊക്കെ അതായത് പഠിപ്പിനനുസരിച്ചുള്ള അവസരങ്ങൾ കിട്ടാനുള്ള ഉണ്ടാവാതിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്